ആ ഹലോ ആ ഓക്കെ

ആ എത്ര ദിവസമായി തുടങ്ങിയിട്ട് അതെയല്ലെ എത്ര വയസ്സുണ്ട് എത്ര വയസ്സുണ്ട് നാല്പത്തെട്ട് അല്ലെ ഓക്കെ ഓക്കെ തീരെ രണ്ടു ദിവസമായിട്ട് പനി ഉണ്ടല്ലേ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നോ എവിടേയും കാണിച്ചിട്ടില്ല എന്തെങ്കിലും മരുന്നുകൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നോ വേറൊന്നും കഴിച്ചിട്ടില്ല ആ ഓക്കെ ഓക്കെ വേറെയെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പനി അല്ലാതെ ആ അ അ അതെ തൊണ്ട തൊണ്ടവേന പോലെ പ്രശ്നമോ ചുമയോ ഉണ്ടോ തൊണ്ടവേദന ഉണ്ട് ചുമയുണ്ടോ

ചുമയുണ്ടോ ചുമയുണ്ടല്ലേ വരണ്ട ചുമയാണോ അതോ കഫമായിട്ട് ഇളകിവരുമോ ചെറിയ ചുമ അതെ ആ ഹാ ഹാ വേറെയെന്തേലും പിന്നെ മരുന്നുകൾ വേറെയൊന്നും കഴിച്ചിട്ടില്ലല്ലോ പാരസെറ്റമോള് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളു ആ വല്ല മഴ നനയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ആ എവിടെയെങ്കിലും പിന്നെ പുറത്തെവിടെയെങ്കിലും ചെളി വെള്ളത്തിലിറങ്ങി എന്തെങ്കിലും പണിക്ക് പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ഒന്നുമില്ല അല്ലെ വേറെയെന്തെങ്കിലും ലക്ഷണമുണ്ടോ കണ്ണിൽ ചുവപ്പോ അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അല്ലെ വേറെ ശാരീരികമായിട്ട് വേറേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ക്ഷീണം ഉണ്ടോ ക്ഷീണം ഉണ്ടോ ചെറുതായിട്ടുണ്ട് ചുമക്കുന്നുണ്ടോ ചുമക്കുന്നുണ്ടോ ഇല്ല ആ ക്ഷീണം ഉണ്ടോ ക്ഷീണം ഉണ്ടോ ആവുന്നില്ല അത് പനീൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും രണ്ടു ദിവസമായില്ലേ തുടങ്ങിയിട്ട് പനി കുറഞ്ഞും കൂടിയും ഇരിക്കുന്നതാണോ അതോ പിന്നെ പനിച്ച് കഴിഞ്ഞാൽ ഈ പനി പനിതന്നെ ആണോ അതോ പിന്നെ രാത്രി കൂടുമോ അങ്ങനെയെന്തെങ്കിലും അവസ്ഥയുണ്ടോ വിയർത്തു പോയി അല്ലെ ആ അപ്പോൾ ഇന്നലെയാണ് ആ ഇന്നലെയാണ് അല്ലെ ആ ആ ആ ഓക്കെ ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം ചിലപ്പോൾ കാലാവസ്ഥ മാറിയതിൻ്റെ കാര്യം ആയിരിക്കും ഞാനത് രണ്ട് മരുന്നെഴുതാം രണ്ട് മരുന്ന് പറഞ്ഞുതരാം അപ്പോൾ ആ ഗുളിക കഴിക്കുക ഒര് മൂന്ന് ദിവസം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണം നന്നായി റെസ്റ്റ് എടുക്കുക പിന്നെ ആവി പിടിക്കുക തൊണ്ടവേന ഉണ്ട് എന്നല്ലേ പറഞ്ഞത് തൊണ്ടവേദന വേറെയെന്തെങ്കിലും ഭക്ഷണം ഇറക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ചെറിയ അല്ലാതെ നോർമൽ ആയിട്ടുള്ള തൊണ്ട വേദനയേ ഉള്ളു അല്ലെ എങ്ങനെ അല്ല അതാണ് ഞാൻ അതാണ് ഞാൻ ചോദിച്ചത് അതാണ് നിങ്ങൾ പുറത്തെവിടെയെങ്കിലും ഈ ചെളിയിൽ എന്തെങ്കിലും പണിയെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല ഓക്കെ ഓക്കെ പരമാവധി പിന്നെ അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എലിപ്പനിയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ കാലിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ചളിയിലൊന്നും ഇറങ്ങിയിട്ട് പണിയെടുക്കരുത് ആ അപ്പോൾ ആ ഓക്കെ